മാധ്യമ പ്രവർത്തകർ ഗ്രാമ ഗ്രാമ പ്രദേശത്തെ പ്രശാധികമായ പ്രശ്നങ്ങളിൽ അധികമായിട്ടൊന്നും ഇടപെടാറില്ല അത് എന്താന്ന് ചോദിച്ചാൽ ഈ ഗ്രാമ പ്രദേശങ്ങളിൽ ഒത്തിരിയും വീടുകൾക്ക് വഴി ഇല്ലാതെ ഒരു വെള്ളം കിട്ടാനും അതുപോലെ ഗ്യാസ് കൊണ്ടു വരാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വഴി ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏറെ മനുഷ്യരുണ്ട് ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു പത്തിരുപത് വീട്ടുകാർക്ക് വഴി ഇല്ലാതായിട്ട് ആരെ ഈ മാധ്യമ പ്രവർത്തകരൊന്നും അതിൽ ഇടപെട്ടില്ല പിന്നെ നാട്ടുകാർ ഞങ്ങൾ അതിലുണ്ടായിരുന്ന ഇങ്ങോട്ട് പോകുന്ന വീട്ടുകാരുതന്നെ കേസും പുക്കാറുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്കൊരു വഴി സ്വന്തമായിട്ട് ഉണ്ടായത് ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു ഗ്യാസ് ആണേലും ഞങ്ങളുടെ അടുത്ത പ്രദേശത്തോട്ട് ഗ്യാസ് വണ്ടി കേറി വരാനുള്ള സൗകര്യം ഞങ്ങൾക്കുണ്ടായത് അതുപോലെ ഒരു കുടിവെള്ളത്തിനാണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു ഇപ്പം ഈ അടുത്ത കാലത്താണ് ഞങ്ങൾക്കൊരു കുടിവെള്ള പദ്ധതിയാണേലും ഉണ്ടായിട്ടുള്ളത് അത് ഇപ്പം വഴി സൗകര്യം ഉണ്ടായതിന്റെ പേരിലാണ്